ഈ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യമായി സർക്കാർ ചെയ്യേണ്ടത് ഇവിടുത്തെ വിദ്യാഭ്യാസം നന്നായി കൊടുത്ത് ഇവിടെ നല്ലത് ഫാക്ടറികളും മറ്റ് തൊഴിൽ മേഖലകളുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് നിലവിൽ ഇപ്പോഴെത്തെ ഒരു നമ്മുടെ എൻ്റെ കാഴ്ചപ്പാടിൽ നിലവിൽ ഈ പറഞ്ഞ ഒരു പ്രസ്ഥാനങ്ങളോ അല്ലങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും ഒരു രീതിയിലും നന്നായി കൊണ്ടുപോകുന്ന ഒരു രീതി ഇവിടെ കാണുന്നില്ല നിലവിൽ ഇതിനെയൊക്കെ പരിഹരിക്കണമെങ്കിൽ യുവജനങ്ങൾക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ സർക്കാർ നല്ല നല്ല ഫാക്ടറികൾ നല്ല നല്ല തൊഴിൽ കിട്ടുന്ന ലഭിക്കുന്ന ഫാക്ടറികൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തും അതാത് സ്ഥലത്ത് ൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതിന് ശേഷം അതിന് ഇവിടുത്തെ ഇപ്പം നിലവിലിവിടെ തേയില കൃഷി നടക്കുന്നുണ്ടെങ്കിൽ തേയില ഫാക്ടറികൾക്ക് ഉണ്ടാക്കണം അതുപോലെത്തന്നെ കർഷകന് ഇത് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകണമെന്നും സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ചെയ്യണമെന്നുമാണ് എനിക്ക് പറയുവാനുള്ളത് നിലവിൽ ഈ ഏത് രീതിയിലും ഇപ്പം യുവജനങ്ങൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കണം നിലവിലിപ്പോൾ നമ്മളുടെ കേരളത്തിലെ കാർഷിക ദിനമാണെങ്കിൽ പോലും നിലവിൽ കൃഷിപ്പണിക്കാണെ പോലും കേരളത്തിൽ പണിക്കാറില്ലാതെയും വരുന്നതിൻ്റെ കാരണം കേരളത്തിൽ യുവജനങ്ങളെ പിടിച്ച് നിർത്താനുള്ള സംവിധാനങ്ങൾ സർക്കാർ നോക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നിലവിൽ ഒന്ന് രണ്ട് പിന്നീടുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏത് പ്രസ്ഥാനം ഏത് രീതിയിൽ എവിടെ നടത്തുന്നു എന്നുള്ളത് അതാത് പ്രദേശത്തെ ഉള്ള പഞ്ചായത്തോ അല്ലങ്കിൽ അങ്ങനെയുള്ള രീതികളിൽ ഉള്ളയാളുകളുമായി സർക്കാർ ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വേണം ഈ കാര്യങ്ങൾ ആലോചിക്കാനും നടക്കാനും അല്ലാതെ നിലവിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി ഈ കേരളം മുഴുവനും ഒരേ രീതിയിലുള്ള ഭൂപ്രകൃതിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും അല്ലാത്തത് കൊണ്ടും ഈ പിന്നെ നിലവിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അത് നിലവിൽ ചെയ്യണം അത് ഇങ്ങനെ ആലോചിച്ച് വേണം ചെയ്യാൻ അല്ലാതെ ഇപ്പം തിരുവനന്തപുരത്തെ കാലാവസ്ഥയല്ല പിന്നെ കോട്ടയത്തുള്ളത് കോട്ടയത്തെ കാലാവസ്ഥയല്ല പാലക്കാടുള്ളത് പാലക്കാടെ കാലാവസ്ഥയല്ല ഇടുക്കിയിലുള്ളത് അല്ലങ്കിൽ മലപ്പുറത്തുള്ളത് അതുപോലെത്തന്നെ നിലവിൽ ഓരോ അതാത് പ്രദേശത്തിൻ്റെതായ രീതിയിലുള്ള സ്ഥലത്ത് സ്ഥലം നോക്കിയിട്ട് അവിടെ നടത്തേണ്ട കൃഷികളോ അല്ലേൽ വ്യവസായങ്ങളോ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അതാത് പ്രദേശത്തുള്ളയാളുകളുമായിട്ട് ആലോചിക്കണം അത് അതാത് പ്രദേശത്ത് പഞ്ചായത്തിലുള്ള ആളുകൾ ജനപ്രതിനിധികൾ ജനപ്രതിനിധകൾ അങ്ങനെയുള്ള ആളുകളൊക്കെയുണ്ട് അവരെയൊക്കെ അവരൊക്കെ ബന്ധപ്പെട്ട് നിൽക്കണം നിലവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നോക്കി ചെയ്ത് തൊഴില്ലായ്മ പരിഹരിക്കുവാനും അതുപോലെത്തന്നെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കുറച്ച് കൂടിയൊക്കെ ജോലി സാധ്യതക്കുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുവാനുണ്ടോ ഇല്ലെയോ എന്നുള്ളതുംകൂടി നിങ്ങൾ പരിശോധിക്കണം നിലവിൽ അതൊക്കെയാണ് നടത്തേണ്ടത് പിന്നെ ഈ കാര്യങ്ങൾ നന്നായി പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നു ഇപ്പം ഈ നൈപുണ്യ വികസന പദ്ധതിയെക്കുറിച്ചെനിക്ക് പറയുവാനായിട്ട് എനിക്ക് വലിയ ഒരു അതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല നിലവിൽ ഈ പറഞ്ഞ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ മാത്രം ആദ്യം ഞാൻ ഇത്രയും എനിക്കറിയാവുന്ന ഒരു രീതിക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് സംസാരിക്കുന്ന ഉള്ളൂ നിലവിൽ ഒന്ന് ഇതിനെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കുക ഇങ്ങനെയൊക്കെയാണ് എൻ്റെയൊരഭിപ്രായം അത് ആലോചിച്ച് ചെയ്യുന്ന ഒരു സമയം എന്നുണ്ടാകുന്നോ അന്ന് ഈ തൊഴിലില്ലായ്മയൊക്കെ പരിഹരിക്കും നിലവിൽ അതാണ് നടത്തേണ്ടതെന്ന് ആണ് എൻ്റെ അഭിപ്രായം